അതേല്ലോ ആരായിരുന്നു പനി അതേല്ലോ എത്ര ദിവസായി പനി തുടങ്ങിയിട്ട്

ആണോ എവിടെയായിരുന്നു ഇതിന് മുൻപ് കാണിച്ചത് അതെയോ

ആണോ ടെമ്പറേച്ചർ നോക്കിയിരുന്നോ എത്ര ആയിരുന്നു

അ ഓക്കേ ഓക്കേ ടെമ്പറേച്ചർ എത്രയാന്ന് അറിയാത്തത് കൊണ്ട് നമുക്ക് മരുന്ന് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരു തനിക്ക് വീട്ടിൽ ആർക്കെങ്കിലും പനി വന്നിട്ടുള്ള ലക്ഷണം എന്തെങ്കിലും ഉണ്ടോ

അതെ അ ഇപ്പഴത്തെ കണ്ടിഷനിൽ എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കുറെ ഡെങ്കിപ്പനിയും അങ്ങനെ എല്ലാം ഇറങ്ങുന്നത് കൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മളിവിടെ വന്ന് നോക്കിയാലാണ് പറയാൻ പറ്റത്തോളു അല്ലാതെ ഇപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്കെങ്ങനെ മെഡിസിൻ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൽ നേരിട്ട് കണ്ട് നോക്കുന്നില്ലല്ലോ ടെമ്പറേച്ചർ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ചിലപ്പോൾ സാധാ നോർമൽ പനി ആയിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ഇപ്പോൾ ഇത്രയും ദിവസായിട്ട് കുറയാത്തത് കൊണ്ട് നമ്മള് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കണ്ടി വരും ഇപ്പോൾ ജലദോഷം അല്ലെ എന്തായാലും ജലദോഷം കുറവില്ലല്ലേ

അതെയോ അ ഓക്കേ

ഓക്കേ ഓക്കേ അങ്ങനെ നമ്മള് കൂടുതലായിട്ട് എപ്പഴും അങ്ങനെ വിളിച്ചോണ്ടിരിക്കുവോന്നും വേണ്ട ഒരു ദിവസം ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി അതുപോലെ തന്നെ ഇങ്ങനെ പാരസെറ്റമോൾ അധികം കഴിക്കണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വട്ടം ആവി പിടിക്കൂ കഫക്കെട്ടുണ്ടോ

ആണോ ആണോ അത് ചിലപ്പോൾ പനി കൂടിയിട്ട് എന്തേലും ഫുഡിൻ്റെ എന്തേലും എഫെക്ട് ആയിരിക്കും ഞാന് എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ് വാ എന്തായാലും രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വാ എന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ നോക്കിയിട്ട് മെഡിസിൻ എന്താന്ന് വെച്ചാൽ തരാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കോൾ ചെയ്തത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞ് തരാം ഓക്കേ ഓക്കേ ശരി എന്നാൽ ഓക്കേ താങ്ക്യൂ